യാത്രയ്ക്കിടയിൽ ഞാൻ വായിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് യാത്രയ്ക്കിടെ വായിക്കുക എന്ന് പറയുന്നത് ഇപ്പം ബസ്സിലായാലും ട്രെയിനിൽ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വായിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ യാത്രയ്ക്കിടയിൽ വായിക്കുക എന്ന് പറയുന്നത് കാരണം ഭയങ്കര രസമാണ് നമുക്ക് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഒരു രസം ഉണ്ടാവും തണുപ്പുണ്ടാവും പിന്നെ പല ഇനി എന്തുവാണ് ഭയങ്കര ഇഷ്ടമാണ് യാത്രക്കിടയിൽ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് പിന്നെ പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വച്ച് കഴിഞ്ഞു എന്നാൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പം കാറ്റടിച്ച് കയറിയിട്ട് നമ്മുടെ കണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറേ കഴിയുമ്പം കുറേ നേരം വായിച്ച് കഴിയുമ്പം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ കുറേ നേരം കഴിയുമ്പത്തേക്കിനും കണ്ണൊക്കെ ഇങ്ങനെ നീറും ആ അതൊരു പ്രശ്നമാണ് കണ്ണ് നീർ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പം ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്ന ആളായത് കൊണ്ടായിരിക്കും കണ്ണട വയ്ക്കുന്നത് കൊണ്ട് അങ്ങനെ വല്ല ഇതുള്ളത് കൊണ്ടായിരിക്കും അത് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനത്ത ഒരു പ്രശ്നമുണ്ട് വേറെ അല്ലാതെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല എനിക്ക് സത്യം ശരിക്കും പറയുകയാന്നെങ്കിൽ ഞാൻ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ബസ്സിലോ ട്രെയിനിലോ ഒക്കെയാണെന്ന് ഭയങ്കര സൗണ്ടുണ്ടല്ലോ അപ്പം ഒച്ച വരുമ്പത്തേക്കിനും സൗണ്ടിൻ്റെ ഇത് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആരെക്കെയോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തോ ട്രെയിനും ബസ്സിലും വീട്ടിൽ ഇരിക്കുമ്പോഴും ആണെങ്കിൽ പോലും എനിക്ക് അടുത്തുള്ള സൗണ്ടൊക്കെ കേട്ടു എന്തോ പോലെ തോന്നുമെങ്കിൽ പോലും ട്രെയിനിലും ബസ്സിലും ഇരിന്ന് കഴിഞ്ഞ ആ ആ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു സുഖം പിടിച്ച് അങ്ങ് വായിച്ച് പോയി കഴിയുമ്പം പിന്നെ വേറെ ശബ്ദങ്ങളൊന്നും കേൾക്കത്തൊന്നുമില്ല അതുകൊണ്ടെ് എനിക്ക് അങ്ങനെ വലിയ പരിമിതികളൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഉള്ളത് എൻ്റേതായിട്ടുള്ള ഒരു മടിയുണ്ടെങ്കിലേ ഉള്ളു അതായത് നമ്മുടെ ജനലിൻ്റെ അവിടുത്തെ ആ സീറ്റ് കിട്ടണം സൈഡിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാലെ എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് നിർബന്ധങ്ങൾ ഉണ്ടന്നല്ലാതെ വേറെ ഒരു പരിമിതി തോന്നിയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് യാത്രയ്ക്കിടെ വായിക്കുന്നത് അത് ഇപ്പം ഏറ്റവും ഇഷ്ടം ബസ്സും അതുപോലെ ട്രെയിനിൽ പോവുകയാണെന്നൊണ്ടെങ്കിൽ വായിക്കുന്നത് കാരണം അപ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖവായിട്ട് അങ്ങ് ഇരുന്ന് വായിച്ച് പോവാൻ പറ്റുന്നത് വേറെ അത് വേറെ വണ്ടിയിൽ പോവുമ്പോൾ അത്രയും ഇതില്ലല്ലോ ഈ രണ്ടെണ്ണം പറയുന്ന നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഇരുന്നങ്ങ് വായിച്ച് പോവാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പം അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പം നേരത്തെ ഇപ്പം ഒരു ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞത് പോലെ ഞാൻ ഇപ്പം ആ വായിച്ചു കൊ ണ്ടിരിക്കിന്ന ആ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അപ്പം അതിൻ്റെ എന്ന് പറയുമ്പം അത് ഞാൻ വീട്ടിൽ ഇരുന്ന് വായിച്ചിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് ഇത്രയും സുഖം കിട്ടിയിട്ടില്ല അതേ ബുക്ക് തന്നെയാണ് ഞാൻ ഇപ്പം ഒന്നും കൂടെ വായിച്ചോണ്ടിരിക്കുകയാണ് അപ്പത്തേക്കിനും ഇതേപോലെ ബസ്സിൽ ദിവസവും ഇതേപോലെ കോളേജിലോട്ട് വരുന്ന വഴി ഇങ്ങനെ വായിക്കും അല്ലെങ്കിൽ പോകുന്ന വഴി വായിക്കും അത് ഭയങ്കര രസമാണ് നമ്മൾ അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പ അത് കഴിയുമ്പത്തേക്കിനും അങ്ങനെ അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും ഞാൻ രാവിലെ അത് വായിച്ചു കൊണ്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് നല്ല രസമണ് ഇപ്പം പോകുമ്പോഴാണെങ്കിലും ഒരേ വഴിയിൽ കൂടെ എപ്പോഴും എപ്പോഴും എപ്പോഴും പോകുമ്പോഴുള്ള ആ ഒരു മടുപ്പുണ്ടല്ലോ ആ മടുപ്പ് മാറി കിട്ടാനും ഈ വായിക്കുന്ന ഭയങ്കര രസമായിരിക്കും ഒന്നാമത് ഞാൻ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ് ആ വഴിയിൽ പാടവും കണ്ടവും അതൊക്കെയായിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ കൂടെ നമ്മൾ പുസ്തകവും കൂടെ വായിച്ച് പോവുമ്പോൾ എല്ലാ ദിവസവും പോകുന്നതിൻ്റെ ആ ഒരു മടുപ്പും അതുപോലെ ഈ ഒന്നൊന്ന് ഒരു ഒന്നര മണിക്കൂറിനടുത്ത് ഞാൻ ആ ബസ്സിനകത്ത് ഇരിക്കണം അപ്പം അതിൻ്റെ ആ ഒരു മടുപ്പും ക്ഷീണവും മാറും മൊത്തത്തിൽ ആ ഒരു അല്ലെങ്കിൽ കോളേജിലെത്തുമ്പോൾ ഉറങ്ങിയ പോലെ ആയിരിക്കും നമ്മൾ എത്തുന്ന ഇതാവുമ്പോൾ വായിച്ചു കൊണ്ട് പോവാം അങ്ങനെ വലിയ ഉറക്കമൊന്നും വരത്തില്ല ഭയങ്കര രസാണ് അതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെയൊക്കെ കേട്ടു കൊണ്ട് പോവുകയാണെണ്ടെങ്കിൽ സ്വർഗ്ഗം ഭയങ്കര രസമായിരിക്കും അതെനിക്ക് അതുകൊണ്ട് എ നിക്ക് എവിടെയെങ്കിലും പോവുമ്പം ഇങ്ങനെ വായിച്ചു കൊണ്ട് പോകുന്നത് ഭയങ്കര ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവാണ് അങ്ങനെ വായിച്ചു കൊണ്ട് പോവുന്നത്